എനിക്ക് പ്രിയപ്പെട്ട മാസിക എന്ന് പറയുന്നത് അൽ മാസിക കുടുംബ ജ്യോതിസ് എന്നു പറയുന്ന മാസികയാണ് മലയാള മനോരമയാണ് അപ്പോള് മാസിക ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം ഞാൻ കൂടുതലായിട്ടും വായിക്കുന്നത് ശരിക്കും പറഞ്ഞാല് കുടുംബ ജ്യോതിസ് മാത്രമേ ഉള്ളു മറ്റുള്ള വാക്കും മറ്റുള്ള മാസികകളധികം വായിക്കാറില്ല നമുക്ക് കുടുംബ ഈ കുടുംബ ജ്യോതി എന്ന് പറയുന്ന ഈ മാസികയില് അനുദിനം കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങള് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെ ഒരു കുടുംബം ഒരു പ്രശ്നത്തെ അതിജീവിക്കണം എന്ന് എന്നുള്ള കാര്യം അല്ലെങ്കില് നമ്മുടെ ഏറ്റവും ലൈവായിട്ടുള്ള നമ്മുടെ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സഭയിൽ നടക്കുന്ന ആനുകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങള് എക്ക നല്ല രീതിയില് നല്ല രീതിയില് അത് എഴുതിയിട്ടുണ്ട് നല്ല രീതിയില് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോള് നമുക്ക് അനുദിനം നടക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന സഭാ സഭാ പരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കും ഒരു കുടുംബത്തിൽ ഈ ആധുനിക കാലത്ത് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് ഉടു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്നൊരു മാസികയായിട്ട് കുടുംബജ്യോതി എന്നു പറയുന്ന മാസികേനെ ഞാൻ കാണുകയാണ് അതുകൊണ്ടു തന്നെ ഇത് വളരെ പ്രയോജനമാണ് എന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ന തരുന്നത് എന്നു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ പത്രം അല്ലങ്കിൽ ഈ ഈ മാസിക എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെതന്നെ ഞാനിഷ്ടപ്പെടുന്ന പത്രം മലയാളമനോരമ പത്രമാണ് കാരണം സമഗ്രമായിട്ട് വാർത്തകളെ ചിത്രീകരിക്കുവാനായിട്ട് മറ്റു പത്രങ്ങളേക്കാളും മലയാള മനോരമ പത്രത്തിന് കഴിയുന്നുണ്ട് വാർത്തകൾ കൂടുതലുണ്ട് പിച്ച അതിൻ്റെ വാർത്തകളെ സാധൂകരിക്കുന്ന ചിത്രങ്ങൾ നല്ല മനോഹരമായിട്ടതായത് കളർ കളർ കൂടുതലും കളർ കളർ പ്രിൻ്റ് തൻ ചെയ്തു തന്നെ അതുപയോഗിക്കുന്നുണ്ടപ്പോള് ഏറ്റവും ആകർഷികമാ ആകർഷകണമായി ആകർഷകമായ രീതിയിൽ തന്നെയാണ് മലയാള മനോരമ പത്രം തങ്ങളുടെ വാർത്തകൾ വാ വാർത്തകർ വാർത്തകൾ ആൾക്കാരിലേക്ക് ആളുടെ ജനങ്ങളുടെ ഇടയിലേക്കെത്തിക്ക എത്തിക്കുന്നത് അതുകൊണ്ടു തന്നെ കൂടുതലായിട്ടും വായിക്കാനിഷ്ടപ്പെടുന്നത് മലയാള മനോരമ പത്രമാണ് അതുപോലെ വാർത്തകൾ സമഗ്രമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വശങ്ങളേയും കാണിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റൈൽഡായിട്ട് മറ്റു പത്രങ്ങളിനേക്കാളും ഉപരിയായിട്ട് കുറച്ച് കൂടെ ഡീറ്റൈൽഡായിട്ട് വാർത്തകൾ ക് കൊടുക്കുവാനായിട്ടവര് ശ്രദ്ധിക്കുന്നുണ്ട് മറ്റു പത്രങ്ങളിൽ പേജുകള് കുറവായതുകൊണ്ടുതന്നെ വായിക്കാനായിട്ട് ചിലപ്പെനിക്കിൻട്രസ്റ്റ് തോന്നാറില്ല പക്ഷേ ഇത് പേജുകള് മറിക്കുമ്പോള്ത്തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം ഒത്തിരി പേജുകളുണ്ട് നമുക്കിങ്ങനെ മറിച്ച് മറിച്ച് വിടാം പിന്നെ നല്ല കളർഫുള്ളായിട്ട് സംഭവങ്ങള് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലട്ട്രാക്റ്റ് നമ്മളെ അട്ട്രാക്റ്റ്യ്യുന്ന രീതിയിലാണ് കാ മാറ്റേഴ്സ് പ്രസൻറ്റ്യ്യുന്നത് അപ്പോള് സ്പോർട്സിൻ്റെ പേജൊക്കെ നല്ല ഞാനേറ്റവും കൂടുതൽ നോക്കുന്നത് സ്പോർട്സിൻ്റെ പേജാണ് അപ്പോള് ഏറ്റവും അകാ ആകർഷകമായിട്ട് നല്ല വലിപ്പത്തില് അതുപോലെതന്നെ ചെല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളക്കേണ്ടങ്കില് ഏറ്റവും ഹൈലൈറ്റായിട്ടായിരിക്കും സംഭവം ഏ ആ ഏത് വിശേഷമായിക്കോട്ടെ അതെല്ലാം നല്ല രീതിയില് ഹൈലൈറ്റ്യ്ത് നല്ല കളറില് ഫ്രണ്ട് പേജിലൊക്കെ കൊടുക്കുമ്പോള് നമുക്കത് പത്രമെടുക്കുമ്പോള് തന്നൊരു സന്തോഷമാണ് ഇന്നെന്തെക്കൊയോ ഉണ്ട് നമുക്ക് വായിക്കാനുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് നമുക്ക് കേൾക്കാനായിട്ടുണ്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോള് നമുക്കൊരു സന്തോഷവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാർത്തകള് വായിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ നമുക്ക് കൂടുതലും വാർത്തകള് കൊടുക്കുമ്പോള് നമുക്കത് വായിക്കാനായിട്ടോ അല്ലെങ്കിലത് കേൾക്കാനായിട്ടോ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നാറില്ല പക്ഷേ മലയാള മനോരമ പത്രം വളരെ ആകർഷകമായിട്ടുള്ള രീതിയിലാണ് തങ്ങളുടെ വാർത്തകള് ജനങ്ങളിലേക്കെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വായിക്കാനായിട്ടും കേൾക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ്